നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച രാത്രി ഏകദേശം ഒരു ഒൻപത് ഒൻപതര ആയി കാണും അപ്പോൾ ഞാൻ തിരുവനന്തപുരം കേരളം തിരുവനന്തപുരം പാളയം രാജ് ഹോട്ടലിൽ മുപ്പതാം റൂമിലേക്ക് ഒരു സ്വിഗ്ഗിയിൽ നിന്നും ഞാൻ സൊമാറ്റോയുടെ പ്ലാറ്റ്ഫോമിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ബർഗർ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതു ഞാൻ ഇവിടെ മഴയും ചാറ്റലും ആയതിനാൽ ഇവിടുന്ന് ഞാൻ ഫ്ലാറ്റ് മാറി വീട്ടിലേക്കു പോകുന്ന വഴിക്ക് ഈ ഓഡർ ചെയ്തത് ക്യാൻസലാക്കിയായിരുന്നു അപ്പോൾ ക്യാൻസലാക്കിയ സമയത്ത് ഏതാണ്ടൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് ഞാൻ അടച്ച ക്യാഷ് ബർഗറിൻ

അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്ട് സുമാറ്റോയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ സ്വിഗ്ഗിയിലേക്കു വിളിക്കുക എന്നു പറഞ്ഞിട്ട് മൂന്നു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനെന്തു ചെയ്തു മൂന്നു ദിവസം വെയിറ്റ് ചെയ്തു നാലാമത്തെ ദിവസമായി ഇന്നു നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഇതുവരെ എനിക്ക് അതു റീഫണ്ട് ആയിട്ടു കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം ഇതു കൊണ്ടുവരാനായി വന്ന ആളുടെ നമ്പറിലേക്കു വിളിച്ചു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഐ എസ് ഡി നമ്പർ ആയതുകൊണ്ട് തിരക്കിലായിരുന്നു തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഫോണുണ്ടെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിരിക്കും അപ്പോൾ അതിലേക്കു കോൾ പോയിട്ടില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു വീണ്ടും രണ്ടാമതു കൂടി ട്രൈ ചെയ്തു നോക്കിയിട്ട് ഞാൻ സൊ സൊമാറ്റോയിലേക്ക് ഡയറക്റ്റ് വിളിച്ചു അപ്പോൾ സൊമാറ്റോയിലേക്ക് ഡയറക്റ്റ് വിളിച്ചപ്പോൾ ഓഡർ ചെയ്തിട്ടുണ്ട് ഓഡർ ചെയ്തിട്ടുള്ള സാധനം അവർ ഡീറ്റെയിൽസ് നോക്കിയിട്ടു പറഞ്ഞു ഓഡർ ചെയ്തിട്ടുണ്ട് അത് അങ്ങു കൊടുത്തു വിട്ടിട്ട് അതു വീണ്ടും റിട്ടേൺ കൊണ്ടുവന്നു നമുക്ക് പൈസ റീഫണ്ട് ചെയ്തു സൊമാറ്റോയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി സൊമാറ്റോയുടെയും അല്ലെങ്കിൽ ആ ഓഡർ ചെയ്ത ആളുടെയും കൈയ്യിലാണ് കുറ്റം അല്ലെങ്കിൽ അവർ തരാൻ മറന്നു പോയതായിരിക്കും എന്തെങ്കിലും കാരണം പറ്റിയതായിരിക്കും ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് സ്വിഗ്ഗിയിൽ നമ്പർ എടുത്തു ഇപ്പോൾ സ്വിഗ്ഗിയിലേക്കാണ് വിളിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ റീഫണ്ടിനായി നൂറ്റൻപത് രൂപ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാനാണെങ്കിൽ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഏഴ് അറുപത്തെട്ട് ഇരുപത് എന്ന ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേയുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഈ എമൗണ്ട് ഇപ്പോൾ അയക്കാവുന്നതാണ് ഇല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നു വെച്ചാൽ നിങ്ങളതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതാണ്